ഞാൻ ആണേൽ ആമസോൺ വഴി ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഒരു ഉത്പന്നം ആയിരുന്നു ധാത്രീയുടെ ഫേസ് വാഷ് അത് മറ്റേതിലെ പിംപിൾ മുഖക്കുരു ഒക്കെ മാറ്റുന്ന ഫേസ്വാഷാണ് അപ്പോൾ എനിക്കൊ ഒത്തിരി എൻ്റെ മുഖം നിറച്ച് ഭയങ്കര കുരുവായിരുന്നു അത് യൂസ് ചെയ്തതിൽ പിന്നെ ആണ് എനിക്ക് എൻ്റെ മുഖത്ത് പകുതി മുക്കാലും ഇതെല്ലാം മാറിയ കുരുവെല്ലാം മാറിയത് ഞാന് ഒരു ഒരു എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ മുഖത്ത് മൊത്തം കുരുവാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിത് പറഞ്ഞു തന്നേ എൻ്റെ എനിക്കിപ്പോൾ ഞാ ഇപ്പോൾ ഈ പടീ പഠിത്തത്തിൻ്റെ സ്റ്റഡിയുടെ പഠിത്തത്തിൻ്റെ ഇത് കൊണ്ട് എനിക്കിത് ഡെയ്ലി യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് പിന്നെ പിന്നെ ഒത്തിരി യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിൻറ്റേതായ മാറ്റം അപ്പോൾ മനസ്സിലായില്ല പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഡെയ്ലി യൂസ് ചെയ്യാൻ മാക്സിമം നോക്കി അങ്ങനെ മാക്സിമം യൂസ് ചെയ്തപ്പലാണ് മുഖത്തെ കറുത്തപാടുകളും പിംപിൾ മുഖത്തെ കുരുകളും